ഞാൻ സാധാരണ എത്തരത്തിലാണ് ചിത്രങ്ങളെടുക്കാറ് ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കറ് എടുക്കാറ് എടുക്കാറുള്ളതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുമ്പം നമുക്ക് അതായത് പല പല അതായത് നമ്മൾ ഓരോ സ്ഥലത്ത് പോവുമ്പോൾ പല കാഴ്ച്ചകളാണല്ലോ ഇപ്പം ഓരോ സ്ഥലത്തും വ്യത്യസ്ത വ്യത്യസ്ത കാഴ്ച്ചകളും കാര്യങ്ങളൊക്കെയായിരിക്കും ഉണ്ടാവുക അപ്പം ഞാൻ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫോട്ടോ അതായത് എൻ്റെ ക്യാമറയിൽ പകർത്താറുണ്ട് പിന്നെ ഞാൻ വീട്ടിൽപ്പോയി അതായത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും ഇപ്പം ഇപ്പം നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാവരേയും കൂട്ടിക്കൊണ്ടുപോവാൻ പറ്റിയെന്ന് വരില്ലല്ലോ അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോകളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും അവർക്കൊരു സന്തോഷമാവും പിന്നെ അതുപോലെയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറകൊണ്ട് നമ്മൾ ഫാമിലി ഫോട്ടോസ് എടുക്കും അതായത് വീട്ടിലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴൊക്കെ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ അവർ ജനിക്കുന്ന തൊട്ടുള്ള ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആണല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കും പിന്നേയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വല്ലാണ്ട് പുറമേയൊക്കെ പോവുമ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ എടുക്കാം പിന്നെ വീട്ടിലുള്ള കുറച്ച് ഫോട്ടോസ് അതായത് പൂക്കൾ പിന്നെ പുഴകൾ അങ്ങനെയുള്ള ഫോട്ടോസൊക്കെയാണ് എടുക്കാറ്